റസ്റ്റോറൻറ് അല്ലേ ആഹാ ഞാൻ എപ്പോഴും മേടിക്കുന്ന റിഷാനിയാണ് കെട്ടോ ആ അതെ അതെ ആഹാ അതെ ഐറ്റം തന്നെ ഓർമ്മയുണ്ട് അല്ലെ

ആർക്കാണ് ഇഷ്ട്ടപ്പെടാതിരിക്കുക നിങ്ങളുടെ ബിരിയാണിയുണ്ടല്ലോ എൻ്റെ പൊന്നേ യമ്മാ പൊളിയാണ് അതൊരു മൂന്നെണ്ണം ഓർഡർ ചെയ്യാനാണ് ഞാൻ വിളിച്ചത് അറിയാമായിരുന്നു അല്ലെ അത് തന്നെ അത് തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഓർഡർ പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം കെട്ടോ ഒന്ന് ഡെലിവറി ബോയിയോട് ഒന്ന് കൊണ്ടുതരാൻ പറയണം കെട്ടോ ഓ ഇനിയും വിളിക്കാം തീർച്ചയായും